എനിക്ക് എഴുത്തുരനാണോ കവിയാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരാളാണ് ഫാദർ ബോബി ജോസ് കാട്ടേകാട് അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറിയ ചെറിയ ലെ ലേഖനങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഒക്കെയും ഉണ്ട് അത് ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത് സന്ദേശങ്ങൾ യൂട്യൂബിലൊക്കെ അപ്പ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ അത് കേൾക്കാറുണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു മത പ്രത്യേകം ഒരു മത വിഭാഗത്തെ കൂട്ടി ഈയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ദൈവ വചനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചെന്നാൽ ദൈവം നമ്മളെ കോപിക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബിൽ വരുന്ന ഒരു ഇതുണ്ട് ഗുരുചരണം എന്നുള്ളത് അത് ഇന്ത്യൻ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന ആ ഒരു രീതിയിലാണ് അതിൻ്റെ അവതരണ ശൈലി പൊലും അതിൻ്റെ തുടക്കത്തിലും നമോസ്തുതേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റിയിൽ നമോസ്തുതേയും പറഞ്ഞുകൊണ്ടല്ല തുടക്കം അത് ഇന്ത്യൻ കൾച്ചർ ആണ് നമോസ്തുതേ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഒരു മോ മാനുഷിക പരിഗണന വെച്ചാണ് അദ്ദേഹം ഓരോ ഓ വാക്കുകളും പറയുന്നത് പോലും അല്ലാതെ ക്രിസ്തു ദേവൻ പഠിപ്പിച്ചത് എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം സഹിച്ചതും ക്രൂശിക്കപ്പെട്ടതും സ്നേഹിക്കാൻ വേണ്ടിയാണ് രക്ഷപ്പെടാൻ വേ മറ്റ് മതങ്ങളും അത് തന്നെയാണ് പറയുന്നത് അദ്ദേഹം മറ്റ് മതങ്ങളെ പുച്ഛിച്ച് തള്ളുകയോ ഞാൻ ഈ മതം വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയുവോ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണ ശൈലി ജീവിത ശൈലി ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാൻ നമുക്ക് അധികാരമില്ല ഒരു ചെറു ജീവികളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന് അദ്ദേഹം നമ്മളെ ഓരോ ഓ കാര്യങ്ങളിലും നമ്മെ ഓർമിപ്പിക്കുവേം പഠിപ്പിക്കുവേം ചെയ്യുന്നു ഒന്നും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല ചില മത പ്രഭാഷകന്മാർ അങ്ങനെ ചെയ്താലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ ആ ഇത് വഴി പോയെന്നാൽ നിങ്ങൾ നശിച്ച് നാ ഇതായിപ്പോകും ഒരിക്കലും ഒരു വൈദികർ പറയേണ്ട അല്ലെങ്കിൽ ഒരു പുരോഹിതൻ പുരോഹിതനെന്ന് പറയുന്നത് ഏത് മത വിഭാഗത്തിലേയും ശ്രേഷ്ഠൻമാരെയാണ് നമ്മൾ പുരോഹിതരെന്ന് വിളി അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ നശിച്ച് പോകും അത് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ് നമ്മളിലെല്ലാം സന്നിവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു പ്രഭാഷണം പറയാത്തതും എഴുതാത്തതും മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കാത്ത രീതിയിൽ വളർന്നുത്തുന്നതുമായ ഒരു വൈദീകനാണ് ബോബി ജോസ് കട്ടികാട് അദ്ദേഹത്തെ എന്നെ അദ്ദേഹത്തിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ റോൾ മോഡൽ ആക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ ലേഖനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒഴുകി വരുന്ന ഓരോ വാക്കുകളും നമ്മളെ ജീവിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരറ്റ വചനമാണ് ഒരു ഒറ്റ കൺടൻറ് മാത്രമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ മയ് ഈ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് ബോബി ജോസ് കട്ടിക്കാട് അച്ചൻ തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള സൗഹൃദം ഒരു നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് അദ്ദേഹം ഒരു കവി ആണോ എന്ന് ചോദിച്ചെന്നാൽ കവി അല്ല അദ്ദേഹം ഒരു എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചെന്നാൽ എഴുത്തുകാരനല്ല പക്ഷേ ഒരു വ്യക്തിയെ നന്നായി ജീവിക്കാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ ഓ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകേണ്ട ദീപനാളം എങ്ങനെയാണ് നമ്മൾ തെളിഞ്ഞ് നിൽക്കേണ്ടത് ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഞാൻ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് ബോബി ജോസ് കട്ടികാട് അച്ചനാണ്